ആ പറയൂ ഹലോ

ആ വെച്ചാൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് അവശ്യമുള്ളത് ഹ്യുണ്ടായ് ഹ്യുണ്ടായില് ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റായിട്ട് വന്നതൊക്കെ ഐ ടെൻ ഐ ട്വന്റി അതെ ക്രീറ്റ അങ്ങനെയുള്ള കുറെ മോഡലുണ്ട് നിങ്ങൾ ഏതാണ് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് പറയൂ ആ അങ്ങനെ ആണെന്ന് വെച്ചാൽ ഒരു ഐ ടെൻ ആ ലെവലിൽ വരുമെന്ന് വിചാരിക്കുന്നു

കളറ് ഏതെല്ലാം കളറെന്ന് വെച്ചാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ റെഡ് വൈറ്റ് ഡാർക്ക് ബ്ലൂ ആ ശരി അത് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഡെലിവറി ചെയ്യാം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് തരാം പ്രത്യേകതകളെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണ് മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് നമുക്ക് എന്തെങ്കിലും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലേക്ക് ചെറിയ റോഡിലൂടെ എവിടെ വേണമെങ്കിലും പോകാം ഭയങ്കര പെർഫോമൻസ് ആണ് വണ്ടികള് അല്ലാണ്ട് നിങ്ങൾക്ക് ഏതാണ് ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ ഈ റേഞ്ചിൽ വരുന്ന വണ്ടികള് അത്ര അപൂർവം കുറവാണ് രണ്ട് ലക്ഷത്തിനിപ്പോൾ ഒരു കാർ കിട്ടില്ല ഇപ്പോൾ ബൈക്കെ കിട്ടത്തുള്ളൂ വേറെ വണ്ടികള് മാരുതി ഉണ്ട് ഏതാണ് നിങ്ങള് പറയാണെന്ന് വെച്ചാൽ നിങ്ങളെ ചോയ്സ്നനുസരിച്ച് ഞാൻ പറയാം മാരുതിയാണെങ്കിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് ഉണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാല് അതിനനുസരിച്ച് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഉള്ളത് സെലക്ട് ചെയ്ത് കളർ നോക്കിയിട്ട് എടുക്കാം ഏതാണ് ഓൾട്ടോ ഉണ്ടാവും ഓൾട്ടോയുടെ ഏത് വേണം മോഡൽ വേണ്ടേ ആ മാരുതിയുടെ ആ മോഡലാണോ അത് വില കുറവാണ് എന്നാലും അഞ്ച് ലക്ഷത്തിനടുത്ത് എല്ലാ ടാക്സും കൂടി ആവുമ്പോൾ അത് കൂടുതലാവും അതില് പറ്റുകയാണെന്ന് വെച്ചാൽ ഓക്കേ ചില സിറ്റ്വേഷൻസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്നു വെച്ചാല് അതിൻ്റെ എന്തോ ആ അതിന്റെ ബി എച്ച് പി അതിൻ്റെ കളർ നമുക്ക് നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഒരു എയ്റ്റി കിലോമീറ്റർ സ്പീഡിൽ പോവാം ഹൈവേയിൽ നോർമൽ റോഡിൽ ഒരു തെർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡിൽ പോവാം പിന്നെ ഡ്രൈവിങ്ങും മറ്റേ സ്റ്റിയറിങ്ങും ഈസി ആണ് പവർ സ്റ്റിയറിങ്ങാണ് ഓട്ടോ ഗിയർ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഓട്ടോമാറ്റിക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ ഗിയർസും കിട്ടും അല്ലാതെ അതല്ല ഫുൾ ഓപ്ഷനാണെങ്കിൽ ഫുള്ളി ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഫുൾ ഏ സി ഉണ്ട് എല്ലാമുണ്ട് അത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും സിൽവർ ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ മെറൂൺ ഓറഞ്ച് കളറിൻ്റെ ആ മെറൂൺ കളറും ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ഓക്കേ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ പറയൂ ഞാൻ വൈകിട്ട് ഒക്കെ റെഡി ആക്കി വെക്കാം ഓക്കേ കേൾക്കാം ഓക്കേ